കോഴി വളർത്തല് ചെയ്യുന്നവർക്ക് നല്ലൊരു ബിസിനസാണിത് കോഴികൾക്ക് ഇപ്പോള് ഇപ്പോള് പൊതുവേ നിലനിൽക്കുന്നത് പക്ഷിപ്പനിയാണ് പക്ഷിപ്പനി വരുമ്പോഴത്തേക്കും ആണ് കൂടുതലുള്ള കോഴികൾ കോഴികൾ കൂടുതലുള്ളവർക്കാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് വീടുകളിൽ കുറച്ചൊക്കെ ചെയ്യുന്നവർക്ക് അത്രയും കുഴപ്പമില്ല എന്നാലും പനിയൊക്കെ ഉള്ള കോഴികളെ പ്രത്യേകം മാറ്റി കൂട്ടത്തോടെ നില്ക്കാതെ മറ്റുള്ളവരിൽ നിന്നു മാറ്റി അകത്ത് നിർത്തിയേക്കുക അതിൻ്റെ മരുന്നും വെള്ളവും എല്ലാം കൊടുക്കുക പാരസെറ്റോമോൾ ഗുളികകള് പൊട്ടിച്ചു കലക്കിക്കൊടുക്കുക അങ്ങനെ ഒക്കെ നമ്മള് ശുശ്രൂഷിച്ചാൽ അതുങ്ങള്ക്ക് അതുങ്ങള് ഭേദമായിട്ട് വരും ഒന്നിച്ച് കിടക്കുമ്പോഴാണ് എല്ലാത്തിനും ഒരുപോലെ ബാധകമാകുന്നത് അങ്ങനെ പക്ഷി പക്ഷി പനി ഇപ്പോള് ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ ആണെങ്കിലും പക്ഷി പനി കേൾക്കുമ്പോൾ അവര് വന്നിട്ട് എല്ലാത്തിനെയൊന്നും നോക്കാറില്ല പനി ഉള്ളതിനെ ഒന്ന് രണ്ട് നോക്കിയാലും എല്ലാത്തിനെയും കൂടെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഇത് ഒര് എല്ലാർക്കും ചിലപ്പോള് ഒരെണ്ണത്തിനോ രണ്ടെണ്ണത്തിനോ വല്ലോം കാണത്തുള്ളായിരിക്കും പനി പക്ഷേ എന്നാലും കൂട്ടത്തോടെയാണ് അവരതിനെയെല്ലാം നശിപ്പിക്കുന്നത് കോഴികളെ ആണെങ്കിലും താറാവിനെ ആണെങ്കിലും കൂട്ടത്തോടെ നശിപ്പിക്കുക എന്നതാ ന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം നമ്മളതിന് പ്രത്യേകിച്ച് മാറ്റിനിർത്തി അതിനെ പരിപാലിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മരുന്നും ഇതുമെല്ലാം കൊടുക്കുകയാണെങ്കില് പിന്നെ മഞ്ഞള് വെള്ളം കലക്കി കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ചെയ്യുവാണെങ്കില് അതുങ്ങള് പനിയൊക്കെ മാറി നല്ല ഇതിൽ വരാ വരും നല്ല നല്ലതുപോലെ അതിനെ ശുശ്രൂഷിക്കാം ഒരുപാട് ഫാമുകളൊക്കെ ഉള്ളവർക്ക് ആണെങ്കിലത് ചിലപ്പോള് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമുക്ക് വീടുകളിൽ കുറച്ചൊക്കെ ഉള്ളവർക്ക് അതിന് വേറെ വേറെ മാറ്റി കൂട്ടിൽ ഇട്ടൊക്കെ നോക്കി വളർത്തിയൊക്കെ എടുക്കാൻ പറ്റും പക്ഷിപ്പനി വരാതെ സൂക്ഷിക്കുക ഹെൽത്ത് സെൻറ്ററുകളിൽ നിന്നാണേലും പഞ്ചായത്തുകളിൽ നിന്നാണെങ്കിലും അവര് അതിൻ്റെ ചെലവുകളെല്ലാം തന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് അവര് വന്ന് എല്ലാത്തിനും അതിനെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരെണ്ണത്തിനെ വളർത്തി വലുതാക്കി അത്രയൊക്കെ ആക്കി കൊണ്ടുവരുമ്പോൾ ചിലപ്പോള് മുട്ടയിടാറായാതായിരിക്കും ചിലപ്പോള് മുട്ടയിടു ഇട്ടു കൊണ്ടിരിക്കുന്നതായിരിക്കും എങ്കിൽ കൂടിയും അവരതിനെ പെട്ടെന്ന് നശിപ്പിച്ച് കളയുക എന്നുള്ള ആ ഒരിത് അവരുടെ വിചാരം എല്ലാത്തിനും പനിയാണ് എല്ലാം ഒന്നൂടെയാണെന്നുള്ള ഇതിലാണെങ്കില് അവര് കൂട്ടത്തോടെ കൊന്നുകളയുന്നത് പക്ഷേ പക്ഷിപ്പനിയിപ്പോള് വ്യാപകമായിട്ട് എല്ലായിടത്തും വരുന്നതാണ് പക്ഷിപ്പനി കുറേ കുറച്ച് കാലങ്ങളായിട്ട് അതുവരേക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു കുറച്ചുകാലങ്ങളായിട്ടിപ്പോള് എപ്പോഴും പക്ഷിപ്പനികളാണ് പറയുന്നത് അതങ്ങക്ക് മരുന്നും കാര്യങ്ങളു എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കില് നമുക്കതിനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതേയുള്ളൂ കോഴികളെ ആണെങ്കിലും താറാവുകളെ ആണെങ്കിലും നമ്മളതുപോലെ നോക്കുകയാണെങ്കില് നമുക്ക് അതിനെ കുഴപ്പമൊന്നുമില്ല നല്ല പോലെ കൊണ്ടുപോവാൻ പറ്റും നമുക്ക് കുഴപ്പം ഈ പക്ഷിപ്പനി വന്നതോടുകൂടി കോഴിയിറച്ചികൾക്കൊക്കെ ആണെങ്കിലും കോഴിയിറച്ചി വിൽക്കുന്നവർക്ക് ഇറച്ചിക്കാണെങ്കിലും അല്ലെങ്കിൽ മൊട്ട വില്ക്കുന്നവർക്ക് ചിലരും മൊട്ട ഒന്നും ഇപ്പോള് ഉപയോഗിക്കാറില്ല കോഴിയിറച്ചി ഉപയോഗിക്കാറില്ല പക്ഷിപ്പനി ആയതുകൊണ്ട് മൊട്ട പോലും ഉപേക്ഷിക്കുന്നവരുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ അതിനെ നല്ലതായിട്ടൊക്കെ നോക്കുകയാണെങ്കില് നമുക്ക് അതുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇറച്ചിക്ക ഇറച്ചി ആയിട്ട് കൊടുക്കുമ്പോഴും വിൽപ്പനയ്ക്കും ചിലർ ചിലപ്പോള് അവിടുന്ന് ഒന്നോ രണ്ടോ പേരൊക്കെ ചിലപ്പോള് വന്ന് വാങ്ങാറുണ്ട് അല്ലാതെ ഇപ്പോള് പഴയതുപോലെ കൂടുതൽ പനി വന്നു കഴിഞ്ഞാല് അതുങ്ങള്ക്കു മരുന്ന് മരുന്ന് ഇഞ്ചക്ഷൻ ആയിട്ടാണെങ്കിലും മരുന്ന് കുത്തിവെക്കുക അല്ലെങ്കിലവർക്ക് പാരസെറ്റമോൾ പൊടിച്ച് കലക്കി കൊടുക്കുക അതുങ്ങളുടെ വായിൽ ഒഴിച്ചു കൊടുത്താല് മതി അങ്ങനെയൊക്കേ നമ്മള് മഞ്ഞൾ വെള്ളം കലക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ആണ് നമ്മള് സാധാരണ വീടുകളില് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കിയാല് കുറെയൊക്കെ അതിന് മാറ്റങ്ങൾ ഉണ്ടാവും ഒന്നിച്ച് ഇപ്പോള് പനി വന്നതുങ്ങളെ മാറ്റി പനി പനി വന്ന കോഴികളെ തന്നെ മാറ്റി മാറ്റി നോക്കിയാൽ നമുക്ക് ബാക്കിയുള്ള കോഴികൾക്കൊന്നും അത് പിടിക്കാതെ രക്ഷ പനി ബാധിക്കാതെ നമുക്ക് മുന്നോട്ടുകൊണ്ടുപോകാൻ പറ്റും എല്ലാത്തിനെയും പനി വന്നതിനെയും പനി വരാത്തതിനെയും എല്ലാം ഒന്നിച്ചിട്ടിരുന്നാൽ എല്ലാത്തിനും അത് പനി ബാധകമായിത്തീരും അപ്പോഴാണ് നമ്മള്ക്ക് നഷ്ടമുണ്ടാകുന്നത് അങ്ങനെ നോക്കി കുറേശ്ശെ ഓരോ ഒന്ന് രണ്ടും എണ്ണത്തിനു പനി വരുമ്പോൾ അതിനെ നല്ലപോലെ നോക്കുകയാണെങ്കില് നമ്മള്ക്ക് അതിനെ പനി എല്ലാം മാറി അതിനെ പഴയതുപോലെതന്നെ നല്ല ഇതായിട്ട് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ പ്രത്യേകിച്ച്